ഞാൻ ഇതുവരെ വായിച്ചതില് ഏറ്റവും നല്ലൊരു പുസ്തകമായിട്ട് തോന്നിയ എനിക്കിതാണ് എന്താന്ന് വെച്ചാൽ ആയോധനകലകൾ പഠിക്കുന്നത് വെച്ചുള്ള ഏറ്റവും നല്ലൊരു ഉപായം എന്ന് വെച്ചാൽ നമ്മള് ഫിറ്റായിട്ടിരിക്കുന്നതാണ് നിലവില് ചെറുതില് തൊട്ടേ നമ്മൾ ഇതൊക്കെ അഭ്യസിച്ച് വഴങ്ങികഴിഞ്ഞിട്ടുണ്ടെങ്കില് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആയ കാലത്ത് വെറുതെ പണിയെടുത്ത് നടന്ന് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാണ്ട് അവസാനം കാലാവുമ്പത്തേക്കും എന്തേലുമൊക്കെ ഉണ്ടാക്കി പിന്നെ ജിമ്മിലൊക്കെ പോയി അപ്പത്തേക്ക് ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടി വരുന്നത് ഒരിക്കലും ഇതൊക്കെ പഠിച്ചു കൊണ്ടിരുന്ന ആൾക്കാര് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനോ അത് ചെറുതിലെ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ ഉള്ള അസുഖങ്ങളൊന്നും വന്ന് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അവർക്കിങ്ങനെ മരുന്ന് കഴിക്കേണ്ടതായിട്ടോ ഒന്നും വരുന്നില്ല അപ്പം അതില് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതൊക്കെ പഠിക്കുന്നത് നല്ല ആരോഗ്യത്തെ നല്ല രീതിയില് ബാധിക്കുന്നുണ്ട് നിലവില് ഒന്നും പഠിക്കാണ്ട് ഒരു കാര്യം ചെയ്യാണ്ട് വെറുതെ നടക്കുന്ന ഒരാളും ഇപ്പം സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നതോ അങ്ങനെ ഇതായിട്ടുള്ള ഒരാ ഒരാളും തമ്മില് ഒരു പത്ത് കിലോയില് അരിയെടുക്കുകയാണെങ്കിൽ വരെ അതിനകത്തുള്ള വ്യത്യാസം ഉണ്ട്